എന്നാലും ഇന്ന് കായിക രംഗത്ത് പങ്കെടുക്കാൻ വേണ്ടത്ര പോ പ്രോത്സാഹനമൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് അതിനുള്ള സൗകര്യങ്ങളും ഇന്നൊരുപാട് ഉണ്ട് പിന്നെ നമുക്കിപ്പോൾ നമ്മുടെ വീടിനടുത്ത് തന്നെ ഒര് ടർഫ് എന്തായാലും ഏതെങ്കിലും ഏതൊരു പ്രദേശത്താണെങ്കിലും ഇപ്പോൾ ഗ്രാമമാണെങ്കിലും നഗരമാണെങ്കിലും ഏതൊരു സ്ഥലത്താണെങ്കിലും ഇപ്പം ഷട്ടിലിന് വേണ്ടിയിട്ടുള്ള കോർട്ടുണ്ട് അതുപോലെ ഫുട്ബോള് കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെറിയ അവരായിട്ട് ഇപ്പോൾ യുവാക്കള് തന്നെ ഉണ്ടാക്കിയ കോർട്ടുണ്ട് അതുപോലെ ടർഫുകളുണ്ട് ഇപ്പം നമുക്ക് യുവാക്കള് പിന്നെ ജോലിക്ക് പോയി തിരിച്ച് വന്ന് രാത്രി കാലങ്ങളിൽ അവര് ടർഫ് പോയിട്ട് ഫുട്ബോള് ക്രിക്കറ്റ് അതുപോലെ ഷട്ടില് ഈ കായിക കായികവിനോദത്തിലൊക്കെ അവര് ഏർപ്പെടുന്നുണ്ട് ചിലയിടങ്ങളിൽ മാത്രം ഇതിന് പ്രോത്സാഹനം ലഭിക്കുന്നില്ല എന്ത് എന്താന്ന് വെച്ചാല് അവർക്ക് അവർ അവരുടെ വീടിൽ തന്നെ ഇരുന്ന് പുറത്തൊന്നും പോകാതെ അങ്ങനെയുള്ള ചിലർക്ക് ഇതിന് പ്രോത്സാഹനമൊന്നും കിട്ടുന്നില്ല നമ്മ ചിലർക്ക് വീട്ടിൽ നിന്നും ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലുള്ളവര് തന്നെ പറയും വീട്ടിലിരുന്ന് എന്തിനാ ഈ ഈ കളിക്കാൻ പോവുന്നത് ചിലർക്ക് കളി എന്ന് പറയുന്നത് വെറുപ്പ് പോലെയാണ് ഇപ്പോൾ വീട്ടിലുള്ള അമ്മമാർക്കാണെങ്കിലും അഛന്മാർക്കാണെങ്കിലും ഒരുപോലെ പ പറയും എന്തിനാണ് പോവുന്നത് വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ അവർക്ക് പുറത്തുള്ള പുറമേ കുട്ടികളെ വിടാൻ പേടിയാണ് ഒന്നാമതിപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വീട്ടിലുള്ളവർക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെ അവർ അവർക്കതൊരു പ്രോത്സാഹിക്കപ്പെടുന്നില്ല അവർക്ക് വേണ്ടി അപ്പോൾ നമ്മളിപ്പോൾ കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വച്ചാൽ നമ്മുടെ വീട്ടുകാരെ ബോധവൽക്കരിക്കുക ഇപ്പോൾ കായിക രംഗത്ത് ഏർപ്പെടുമ്പോൾ അവരുടെ ജീവിത ശൈലിയിൽ തന്നെ മാറ്റം വരാം അതുപോലെ അവർക്ക് ആരോഗ്യപരമായി ഒര് ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടാവും ഇങ്ങനെയുള്ള ഓരോന്നും നമ്മള് വീട്ടുകാരെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം അവർക്കതിനുള്ള ഒരറിവ് ഉണ്ടാവാത്തതായിരിക്കും പ്രശ്നം പിന്നതുപോലെ അത്യാവശ്യം ഇപ്പോൾ ടർഫൊന്നും ഇല്ലെങ്കില് എല്ലാവരും വീട്ട് വീട്ടിലുള്ളവർ എല്ലാം കൂടിയൊരു ടർഫ് പോലെ അല്ലെങ്കിൽ ടർഫുണ്ടാക്കാനുള്ളൊരു ശ്രമങ്ങള് നടത്തണം ഇതൊക്കെ വിനോദങ്ങളെ പ്രോത്സാഹി യുവാക്കളെ കളിക കായിക രംഗത്തെ പങ്കെടുക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ്